മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപതിനായിരത്തി എഴുനൂറ്റി പന്ത്രണ്ട് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട്